ഹലോ ആരാണ് ആ അതേല്ലോ ഞങ്ങൾ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രജെക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സൈറ്റിലാണ് റിയൽ എസ്റ്റേറ്റെന്നു പറഞ്ഞാൽ നമ്മൾ വലിയ ബിഗ് ബഡ്ജറ്റല്ല സാധാരണക്കാരത് ആയതൊരു ഹൗസ് പ്ലോട്ടുകൾ മാത്രം പിടിക്കത്തുള്ളൂ ഞങ്ങൾ ചെറിയ ഇടത്തരക്കാരെയാണ് ലക്ഷ്യം വെക്കുന്നത് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതീലുള്ള ചെറിയ ചെറിയ പ്ലോട്ടുകൾ എന്താ എന്താ ഐഡിയ എന്താ സ്ഥലത്തിൻ്റെ ഒരു പെർഫെക്ഷൻ നോക്കാം വീടാണോ അതോ

അപ്പം കൂടുതൽ ഏക്കറായിട്ട് വേണം ഞങ്ങളുടെ ഞങ്ങൾക്ക് പല പലയിടത്തും പ്ലോട്ടുകൾ കിടപ്പുണ്ട് ചിലത് ഞങ്ങൾ പ്ലോട്ട് തിരിച്ചിട്ടുണ്ട് ആൾറെഡി ചിലത് പ്ലോട്ട് തിരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു അര ഏക്കറ് കുറയാത്ത രീതിയിലുള്ള പ്ലോട്ടാണ് ആവശ്യം അല്ലേ ആ അതായത് ഞങ്ങളിപ്പം എടുക്കുന്ന പ്ലോട്ട്ന്ന് പറയുമ്പം അതിന് ബൗണ്ടറി അതുപോലെ തന്നെ അതിനകത്തുള്ള വഴികൾ പിന്നെ പുതുതായിട്ടുള്ള ടെലിഫോ അതായത് എലക്ട്രിസിറ്റി സൗകര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ആണെങ്കിൽ സെൻ്റിന് ഏകദേശം ഒന്ന് ഒന്നര ലക്ഷം രൂപയോളാവും ഫിനാൻസിൻ്റെ റിസ്ക്കൊക്കെ നിങ്ങൾ എന്നെ എടുക്കണം ഫിനാൻസ് നമുക്ക് വേണമെങ്കിൽ ബാങ്കിങ് എക്സിക്യൂട്ടീവായിട്ടക്കെ വേണേൽ സംസാരിച്ച് കണക്റ്റെ ചെയ്ത് തരാം പിന്നെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ബാങ്ക് ആവശ്യമുള്ളത് തരാം ഏ ഇതിൻ്റെ മുന്നാധാരം കാര്യങ്ങളൊക്കെ വേണ്ടി വരോല്ലോ അതൊക്കെ ഞാനേറ്റു അപ്പോൾ അതിൻ്റെ ഒരു മറ്റ് റിസ്ക്കൊക്കെ നിങ്ങൾ ഏറ്റെടുക്കണം പിന്നെ സ്ഥലം കാണണമെങ്കിൽ ഞാറാഴ്ച ഒരാറര ആവുമ്പോൾ പോര് ഞങ്ങളവിടെ ഉണ്ടാവും തോട്ടക്കാട് ഈ പള്ളിലോട്ട് വന്നാൽ മതി അവിടുന്നു നമുക്ക് പോവാം അപ്പം അത്രക്ക് മുമ്പുവരണം ആറ് അരയാകുമ്പോൾ ഇരുട്ട് ആവോലോ അപ്പോൾ ഒരൂ നാല് മണി ആവുമ്പോൾ പോര് സ്ഥലം ഏത് രീതിയിലുള്ള സ്ഥലം ഞങ്ങൾക്ക് മൂന്ന് നാല് പ്ലോട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻറ്റായിട്ടുള്ളത് എടുക്കാം നമുക്ക് നമ്മുടെ നമ്മുടെ പ്ലോട്ടുകൾ ഏറെയും അതായത് പ്ലോട്ടുകളിൽ ഒന്നോ രണ്ടോ പ്ലോട്ടുകളെ ഉള്ളൂ നമ്മുടെയി പള്ളിയിൽ ഈ ഒരു ഇടവകയുടെ അതിർത്തിക്ക് അപ്പുറത്തുള്ളത് ബാക്കിയെല്ലാം ഈ ഇടവകേടെ ഉള്ളിലാണ് മറ്റു മറ്റു പ്ലോട്ടുകൾ ഇടവകേൽ പള്ളികളിലൊക്കെ പരിധിയിലാണ് തോട്ടക്കാട്ട് പള്ളീ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് എന്നാൽ ആ നമുക്ക് പള്ളിയിൽ നിന്നിപ്പം തൊട്ടടുത്ത് തന്നെ ഒരു അര അര കിലോമീറ്റർ ദൂരത്തിലുള്ള രണ്ട് പ്ലോട്ട് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ വേണം

അത് നോക്കാം അത് നല്ല സ്ഥലങ്ങളാണ് പ്രത്യേകിച്ച് നല്ല ഉള്ള സ്ഥലമാണ് അതിന്റെ എല്ലാ ഓൾറെഡി അതിൻ്റെ ഗ്രൗണ്ടെല്ലാം ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നതാണ് പിന്നെ നമുക്ക് ആ പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുകയാണ് പത്ത് സെൻ്റ് വീതം തിരിച്ചിട്ടിരിക്കുന്നതാണ് ബൗണ്ടറി ബി ആർ ബി ആർ കെട്ടിയിട്ടിരിക്കുന്നു ഇപ്പെല്ലാം കൊണ്ടും നല്ല കൺവീനിയൻറ്റാണ് ഇടക്കൊരു പാസ്സേജൊണ്ട് വഴിയുണ്ട് ആ ഓരോ പ്ലോട്ടിലേക്കും വണ്ടി എത്താവുന്ന രീതിയിൽ വഴിയുണ്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ വിളിച്ചാൽ മതി ഓക്കെ